ആ ഞാന് ഓൺലൈൻന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് സ്കൂൾ ബാഗ് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് എല്ലാർക്കും ഉപയോഗം ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ് കുറച്ച് നല്ല ചീപ്പാണ് റേറ്റ് നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ച കളറ് തന്നെ കിട്ടി അതുകൊണ്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കണം